തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മള് ഒരുപാട് ക്യു നിന്നിട്ടൊക്കെയായിരിക്കും അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അതായത് പല പാർട്ടികളും വന്നു വീട്ടിൽ വന്നു നമ്മളോട് ഒരുപാട് പിന്നെ നമ്മളുടെ കാലു പിടിക്കുന്ന രീതിയിൽ വന്ന് വോട്ട് ചോദിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് അപ്പൊന്ന് വെച്ചിട്ടുണ്ടങ്കില് നമ്മള് ഇപ്പം നമുക്ക് ആരോടാ താൽപര്യം എന്ന് വെച്ച് നമ്മൾ അവർക്ക് വോട്ടു ചെയ്യും അവരെ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ തരും അതായത് നമ്മളെ ജയിപ്പിച്ച ഉണ്ടെങ്കിൽ വീട് കാര്യങ്ങളൊക്കെ തരും പിന്നെ അതുപോലെതന്നെ നമുക്ക് വേണമെങ്കിൽ പശുത്തൊഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുടുംബശ്രീകാർക്ക് ആണെങ്കിൽ അതിൻറെ ആയിട്ടുള്ള ഓരോ ആവശ്യങ്ങൾ ലോണ് പാസാക്കി കൊടുക്കും അങ്ങനെയുള്ള കന്നുകാലി വളർത്തലിനുള്ളത് കോഴി വളർത്തൽ അങ്ങനെയുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്തുകൊടുക്കുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആയിരിക്കും നമ്മളെ കാലുപിടിച്ച് രീതിയിലായിരിക്കും അവർ വന്നിട്ട് നമ്മളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അപ്പം നമ്മളെന്താണ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് നമ്മൾ അത് പ്രതീക്ഷിച്ച് നമ്മക്ക് അവരെ വോട്ട് കൊടുക്കും ചെയ്യും പക്ഷേ നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻറെ അതായത് ഇവരെ ജയിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടങ്കിൽ നമ്മളത് കഷ്ടപ്പെട്ട് ക്യു നിന്ന് എല്ലാം ചെയ്ത് ജയിപ്പിച്ച കഴിഞ്ഞ നമുക്ക് അതിനുള്ള ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടങ്കില് മെയിൻ ആയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തല്ല അതിനു ശേഷം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്